ആ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലങ്ങളിലൊക്ക വന്നിട്ട് നമ്മൾ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലൊക്കെ കണക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെല്ലാം മാന്വലി ബുക്സിനകത്ത് എഴുതി പല പല ലെഡ്ജറുകളിൽ കീപ്പ് ചെയ്തുമൊക്കെ ആറ്റയിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ഇപ്പം സാങ്കേതിക വിദ്യയുടെ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറുകൾ വരികയും കമ്പ്യൂട്ടറിനകത്ത് പലവിധ സോഫ്റ്റുവെയറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടു കൂടി എല്ലാം ഒറ്റ കൈ ഒറ്റ വിരലിൽ തന്നെ നമുക്ക് ഒരു കാര്യം കണക്ക് കാര്യങ്ങൾ മൊത്തം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം സാങ്കേതിക വിദ്യയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഗുണം പറയുകയാണെങ്കിൽ ലോകം വിരൽ തുമ്പിലെന്നാണല്ലോ ആണ് വിരൽ തുമ്പിലെന്നാണല്ലോ പറയുന്നത് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ പിന്നീട് നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ സാഹചര്യം വച്ചിട്ട് നമുക്ക് ഇൻറ്റർനെറ്റ് ൻ്റെ ഉപയോഗത്തോട് ഉപയോഗം വച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് പോകാതെ തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അല്ല നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമ്മുക്ക് എന്തെല്ലാം കാര്യങ്ങള് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു പ്ലയ്ൻ ടിക്കെറ്റ് എടുക്കുന്നതും പിന്നെ ട്രെയിൻ ടിക്കെറ്റ് എടുക്കുന്നതും ട്രെയിൻ എവിടെ എത്തി എന്നറിണമെങ്കി ലും അതിൻ്റെ ട്രാക്കിങ്ങും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു കൊറിയറ് നമ്മൾ അയക്കുക ആണെങ്കിൽ അത് ഷിപ്മെൻ്റ് ആയോ എവിടെ എത്തി എന്ന് നമ്മുടെ കൈയ്യിൽ കിട്ടും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻറ്റർനെറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് മനസിലാക്കാനാട്ട് സാധിക്കും സാധിക്കുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ പഠനത്തിന് ഇപ്പം തന്നെ കോവിഡ് കാലത്ത് തന്നെ ഈ ഇത് ഇതുണ്ട് ഫോണുകളുടെ ഉപയോഗം കൊണ്ട് ഫോണിൽ ഇൻറ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലാസ്സ്കൾ തന്നെ ലൈവായിട്ട് ക്ലാസുകൾ തന്നെ നടത്തി അതൊക്കെ തന്നെ ഇൻറ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു വൻ വിജയം തന്നെയാണ് അത് ആയിരുന്നു നമ്മുടെ സംസ്ഥാനം നേരിട്ട ഒരു പ്രശ്നത്തിന് നമ്മുടെ രാജ്യം നേരിട്ട ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലോകം നേരിട്ട ഒരു പ്രശ്നത്തിന് തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൊണ്ട് ഒരു പരിധി വരെ ഒരു പരിധി വരെ അല്ല മാക്സിമം അതിനെ നമുക്ക് നേരിടാൻ സാതിച്ചതല്ലേ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ബാങ്കിൽ പോകാതെ തന്നെ ബാങ്കിൽ പോകാതെ തന്നെ ബാങ്കിൽ നിന്നും നമ്മുടെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസകൾ മറ്റൊരാളുടെ അക്കൗണ്ടിലെത്തിക്കുന്നതിനായാലും ആയാലും നമ്മുടെ പർച്ചേസ് പർച്ചേസുകൾ നടത്തുന്നതിനായാലും എല്ലാത്തിനും ഇങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇൻറ്റർനെറ്റിൻ്റെ ഉപയോഗവും അതിൻ്റെ പുരോഗതിയും അത്ര തന്നെ എടുത്തുപറയേണ്ടുന്ന ഒന്നാണ്